കോഴി വളർത്തൽ കൃഷിക്കാർക്ക് തങ്ങളുടെ കോഴി ആരോഗ്യം ഉള്ളതാണെന്നും മനുഷ്യന് ഈ കോഴികളിൽ നിന്നും പല രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് പകരാറുണ്ട് പിന്നെ അതിന് നമ്മൽ വീടുകളിലൊക്കെ നമ്മൾ കോഴി വളർത്തുവാണെങ്കിൽ അതിന് നമ്മൾ കോഴിക്കൂടും പരിസരങ്ങളും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കും എല്ലാ ദിവസവും നമ്മൾ അത് തൂത്തുവാരി കോഴിയുടെ കാഷ്ടം ഒക്കെ എടുത്ത് നമ്മുടെ ചാക്കിനകത്തൊക്കെ എടുത്ത് വെച്ച് അപ്പം അവിടം ഒക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് അപ്പം കോഴിക്കൂടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഞാൻ ആണെങ്കിൽ ഡെറ്റോൾ വെള്ളം ഒക്കെ തളിക്കാറുണ്ട് പിന്നെ കരീലയൊക്കെ കൂട്ടി സൈഡിലൊക്കെ ഇട്ട് വെന്ധം ഒക്കെ ഇട്ട് പുകയ്ക്കാറുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ കോഴികൾക്കൊന്നും വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ അവർ അത് ഈ കോഴിക്കച്ചവടക്കാർ വാക്സിനേഷൻ എടുത്താണല്ലോ നമുക്ക് ആ കുഞ്ഞുങ്ങളെ തരുന്നത് അതുകൊണ്ട് പിന്നെ ചില കോഴികളൊക്കെ ഉണ്ട് അസുഖം വന്ന് ചത്ത് പോകുന്നുണ്ട് നമ്മൾ അതിനെ മാറ്റും അതിനെ മാറ്റിക്കഴിയുന്ന ഉടനെ ബാക്കിയുള്ള കോഴികളെ എല്ലാം പിടിച്ച് മാറ്റിയിട്ട് ആ കോഴിക്കൂടിനകം എല്ലാം നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി ശുചിയാക്കും പിന്നെ അതിനിപ്പം എന്തെങ്കിലും അസുഖങ്ങൾ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോർ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നുകൾ ഒക്കെ വാങ്ങിച്ചിപ്പം പനിയുടെ ഒരു ഇതൊക്കെ വരുവാണെങ്കിൽ വാക്സിനേഷൻ ല പാരസെറ്റാമോൾ ഒക്കെ വാങ്ങിച്ച് നമ്മൾ അതിന് കലക്കി കൊടുക്കാറൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ പച്ച മഞ്ഞളും തുളസി ഇലയും ആര്യവേപ്പ് ഇലയും എല്ലാം കൂടെ ഇട്ട് വെള്ളം തിളപ്പിക്കും തിളപ്പിച്ച് ആറിച്ച് ഞാൻ സ്പൂണിനകത്ത് ആക്കി ഇങ്ങനെ അതിന് കോരി കൊടുക്കാറുണ്ട് പിന്നെ എന്നും നമ്മൾ കുഞ്ഞ് കോഴികളെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഴി വളർത്തലിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് കോഴികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല ഉള്ളതിനെ ഒക്കെ നമ്മൾ മാറ്റാറുണ്ട് അത്രയേ ഉള്ളൂ